എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യാത്ര ചെയ്ത ചരിത്ര പ്രധാനമായ ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമുള്ള ഒരു പാതയെന്ന് പറയുന്നത് ശബരിമല തന്നെയാണ് എൻ്റെ എട്ടാം വയസ്സിൽ ഞാനെൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒരു സ്ഥലം തന്നെയാണ് ശബരിമല എന്ന് പറയുന്നത് ശബരിമലയിലേക്കുള്ള യാത്ര എത്രത്തോളം കഠിനമാണെന്ന് നമുക്കെല്ലാവര്ക്കും അറിയുന്നത് തന്നെയാണ് അവിടേക്ക് വളരെ കഷ്ടപ്പെട്ട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടന്നുതന്നെ കയറിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അവിടേക്കുള്ള യാത്ര ഒരുപാട് ബുദ്ധിമുട്ടുളവാക്കിയതായിരുന്നു കാരണം നടക്കാൻ വേണ്ട മടുത്തുപോകുകയും പിന്നെ പോകേണ്ടയെന്ന് വരെ തോന്നിപ്പോയി ആ ക്ഷീണം കാരണം വേണ്ടയെന്ന് പോലും തോന്നിപ്പോയെങ്കിൽപ്പോലും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോള് അവിടെനിന്ന് കിട്ടിയ ഒരനുഭവം അത് വല്ലാത്തൊരു ഒരു ഫീല് തന്നെയായിരുന്നു കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് മനസ്സിന് കുളിരണിയിക്കുന്ന ഒരു ഒരു ഇത് തന്നെയായിരുന്നു നമുക്കവിടെനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്